ഹലോ എടാ എടാ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് വയനാട്ടിലേക്ക് നിങ്ങളുടെ അവിടെ നല്ല ഹോം സ്റ്റേ കിട്ടുന്ന സ്ഥലം ഉണ്ടോ അവർ ഈ ന്യൂ ഇയറായത് കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ അവന്മാർക്ക് പിന്നെ മറ്റേതില്ലേ ക്യാംപ് ഫയർ വേണം പിന്നെ ചെറുത് അടിക്കാനുള്ള ഇതൊക്കെ വേണം അവന്മാർ അവന്മാർ കൊണ്ടുവരുമായിരിക്കും അവന്മാർ അങ്ങനെയാണ് പറഞ്ഞത് അവിടെ സെറ്റപ്പ് അവന്മാരുടെ സാധനം തീരുകയാണെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞത് ആ അങ്ങനെ വേണം ആ അങ്ങനത്തെയാണ് വേണ്ടത് അവന്മാർക്ക് കുറച്ച് വൈബായിട്ട് നിൽക്കുന്ന സ്ഥലം വേണമെന്നാണ് പറഞ്ഞത് ഏതെങ്കിലും സ്ഥലമുണ്ടോ

അവിടെ ഒക്കെ സെറ്റ് സ്ഥലമാണോ ആ

അപ്പം അവിടെ ആ ആ അപ്പം അവിടെ വാടക വാടക ഒക്കെ എത്രയാകുന്നുണ്ട്

എന്താണ് ബുക്ക് ചെയ്യേണ്ടത് അവരൊരു പത്ത് പേരുണ്ടാകും

ഡബിൾ റൂം മതി

ഞാനില്ല എനിക്കത് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുകയാണ് അതുകൊണ്ട് അവന്മാർ സ്ഥലമുണ്ടെങ്ക് പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ്

ആ ആ ഓ കമ്മീഷനൊക്കെ കിട്ടും അതോർത്തൊന്നും പേടിക്കണ്ട നീ ആ അത് നിനക്കും കിട്ടും എനിക്കും കിട്ടും അവന്മാർ വരുമ്പം തരും എന്നാണ് പറഞ്ഞത് ആ ആ ആ അതെല്ലാം വേണ്ടിയിട്ടുണ്ട് ആ അത് അടുത്തുള്ളത് തന്നെ വേണം

അപ്പോൾ ആറ് പറഞ്ഞോ നീ ആ ആ ഈ നമ്പർ അവന്മാർ ഇന്ന് രാത്രി അവിടെ എത്തും ഇന്ന് രാത്രി അവിടുന്ന് വണ്ടി കയറും മണ്ടേ അതിനടുത്ത് എത്തുമെന്നാണ് പറഞ്ഞത് അവർക്ക് ഒരു അഞ്ച് ദിവസത്തേക്ക് വേണമെന്നാണ് പറഞ്ഞത് അത് അവരോരുത്തര് ഓരോരോ സ്ഥലത്ത് നിന്ന് വരുന്നവരാണ് പുറത്തേക്ക് പുറത്ത് പോയവരൊക്കെ തിരിച്ച് വരുമ്പോൾ കൂടുന്നതാണ് അതുകൊണ്ടാണ്

കമ്മീഷനൊക്കെ കിട്ടും എനിക്കും കിട്ടും നിനക്കും കിട്ടും അതുകൊണ്ട് അത് ഓർത്ത് നീ പേടിക്കണ്ട

ആ ബാർബിക്യു ഒക്കെ അടിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ ബാർബിക്യൂ ഗ്രിൽ ഒക്കെ അടിക്കാനുള്ള സ്ഥലം വേണം

ആ ചെക്കന്മാർ ചിലപ്പം വേറോരോ സാധനങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ ഒപ്പിച്ച് കൊടുക്കണം

ആ ആയിക്കോട്ടേ ആ ആ ആ അതൊക്കെ ഉണ്ട് ഇതിൽ ആ ആ

അവന്മാർ കോഴിക്കോട് വരെ ട്രെയിനിൽ വരുമെന്നാണ് പറഞ്ഞത് അത് അവന്മാർ അവിടെ നിന്ന് വണ്ടിയിൽ കയറുമ്പം വിളിക്കാം എന്നാണ് പറഞ്ഞത്

ആ വേണ്ടി വരും ആ എന്നാൽ നീ നേരെ റിസോർട്ടിലേക്ക് വിട്ടാൽ മതി

ആ അ എനിക്കെന്ത് പേടി ഞാൻ ഇപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏ അവന്മാർ അലമ്പിന് പോകുന്നവരൊന്നും അല്ല ഓരോരുത്തര് ഗൾഫിലും കാനഡയിലും ഉള്ള ചെക്കന്മാരാണ് അത് കൂടാൻ വേണ്ടി വരുന്നതാണ്

ആ പുൽപ്പള്ളി ബുക്ക് ചെയ്തോ ആ ക്വാർട്ടർ മേടിക്ക് ആ നിൻ്റ നമ്പർ അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അവന്മാർ നിന്നെ വിളിച്ചോളും

ആ പിന്നെ ഇറങ്ങാം